ഹൈക്കിങ്ങിനിടെ എപ്പോഴെങ്കിലും വഴിതെറ്റി കുടുങ്ങി പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലനേരത്തെങ്കിലും വഴിതെറ്റി കുടുങ്ങിപ്പോയിട്ടുണ്ട് വലിയ ട്രക്കിങ്ങിൽ എന്തൊക്കെ മുൻകരുതലുകളാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ട്രക്കിങ്ങൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ സ്ഥലം അത്ര നമ്മൾ ഭക്ഷണം കരുതണം നമുക്ക് കുടിക്കാനുള്ള വെള്ളം കരുതണം ഇനി ഒരുപാട് അങ്ങനെ ട്രക്കിങ്ങ് വന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രായമായവരാരെയും കൂടെ കൂട്ടരുത് നമുക്കാവശ്യത്തിനുള്ള സാധനങ്ങൾ തോളിൽ നമ്മൾ തന്നെ കൊണ്ടുപോകണം